ആ സുകുമാരേട്ടാ ഞാനാണേ ഞാൻ അമീദാണേ പിന്നെ നമ്മളൊരു പാർട്ടി ഉണ്ട് അപ്പോൾ നിങ്ങളെ സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ആ വാങ്ങാനൊരു പാർട്ടി ഉണ്ട് നമ്മളേൽ

മൂപ്പരിവിടെ മഞ്ചേരി ഉള്ളതാണ് നിങ്ങളെ നിങ്ങളെ മറ്റേ ഇതല്ല കേട്ടോ തൃശ്ശൂരുള്ള സ്ഥലമല്ല മറ്റേ എറണാകുളം കാക്കനാട് ഉള്ളതില്ലേ നിങ്ങളുടെ മറ്റ് മാൾ ഒക്കെ മാൾ പണിയണം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ മാൾ ഉണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞ് കൊടുക്കുവാണ് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെയാണ് നിങ്ങൾ എങ്ങനെ മാൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത് അതുശരി അപ്പം ഇവർക്ക് എന്താണ് വെച്ചാൽ ഉമ്മറാണ് നമ്മളെ ചങ്ങാതി തന്നെയാണ് അപ്പോൾ മൂപ്പർക്ക് എടുക്കാനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതിപ്പം കാക്കനാട് എങ്ങനെ കുഴപ്പം ഉണ്ടോ ഏരിയ ആണോ എത്ര ഉണ്ട് സ്ഥലം അതെ അല്ലേ നിങ്ങൾ എത്ര പ്രതീക്ഷിക്കുന്നത് അതല്ല അപ്പം റേറ്റ് ഉണ്ടല്ലോ സിറ്റി തന്നെയാണ് ഉള്ളത് എന്തായാലും എല്ലാ സൗകര്യം വെള്ളത്തിനൊന്നും കുഴപ്പം ബുദ്ധിമുട്ടുമില്ല അതുമില്ല ആ ഇവർക്ക് എന്താണ് മെയിൻ ഒരു ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിയിട്ടാണ്

ഏ ഇവർ മുറിച്ചെടുക്കില്ല ഫുൾ ആയിട്ട് എടുക്കും ഇരുപത് ഏക്കറിന് ഫുൾ ആയിട്ട് എടുക്കും എത്ര ഏക്കർ ആണെങ്കിലും ഇവർക്ക് വിഷയമല്ല അതുകൊണ്ട് ഏ നമുക്ക് കാര്യമാണ് അതെ

ഇരുപതാണല്ലേ നിങ്ങൾ പറയുന്നത് ഇരുപത് ലക്ഷമാണല്ലേ എങ്ങനെ ആ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഏ ആയിക്കോട്ടെ ഒരു അടുത്ത ആഴ്ച വരാം നിങ്ങൾ അർജൻറ് ഉണ്ടോ അർജൻറ് എന്തെങ്കിലും ആണോ അർജൻറ് സെയിൽ ആണോ പെട്ടെന്ന് സെയിൽ ചെയ്യുമോ ചോദിക്കുവാണ് കുഴപ്പമില്ല അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ പാർട്ടീനെ കൊണ്ടുവരാം പിന്നെ വേറെ വേറെ എവിടെയാണ് നിങ്ങൾക്ക് സ്ഥലം ഉള്ളത് കോഴിക്കോടുണ്ട് അല്ലേ പതിനഞ്ച് ഏക്കർ ഉണ്ടല്ലേ എവിടെ എയർപോട്ടിൽ എവിടെയാണ് അതെ അല്ലേ ടണലോ അത് കുഴപ്പമില്ല നമ്മുടെ അടുത്തുതന്നെയല്ലേ ഒരു മണിക്കൂർ അല്ലേ ഉള്ളൂ നമുക്ക് പോയി വരാം പോയി റെഡി ആക്കാം ഓക്കെ പിന്നെ എവിടെയാണ് തിരുവാലി എവിടേലും ഉണ്ടോ തിരുവാലി എതാണ് റബ്ബർ തോട്ടം ഒക്കെ എന്തേലും ഉണ്ടോ നിങ്ങൾക്ക് അതെ അല്ലേ ആ അവർക്ക് എന്നുവെച്ചാൽ ഏകദേശം റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്നൊക്കെയുണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ എവിടെ എങ്ങനെ തിരുവാലി എവിടെ എങ്ങനെ വിളിക്കാം അല്ലേ അതെ അല്ലേ ആ ശരിയാക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ

ഓക്കെ ഓക്കെ അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമല്ലേ ആ ശരി എന്നാൽ ശരി ഓക്കെ